ലോക്ക്ഡൗൺ കാലത്ത് ധാരാളം പാചക പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് നിരവധി പാചക പരീക്ഷണങ്ങൾ വിജയിക്കുകയും ചിലതെല്ലാം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേക്ക് ബിരിയാണി ബക്കറ്റ് ചിക്കൻ ഷേക്ക്സ് വിധതരം കറികൾ എന്നിവയെല്ലാം ലോക്ക്ഡൗൺ കാലത്ത് പരീക്ഷിച്ചു അവയെല്ലാം വിജയിക്കുകയും ചെയ്തു എന്നാൽ ടിക്ക അൽഫാം എന്നിവയെല്ലാം പരാജയപ്പെട്ട ചില പരീക്ഷണങ്ങൾ കൂടിയാണ്